പെട്രോളിൻ്റെ വിലവർധന ബൈക്ക് യാത്രയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടൊന്നുമില്ല എന്നാലും വേണമെങ്കിൽ ബാധിച്ചതായിട്ട് പറയാം കാരണം നമുക്ക് പെട്രോള് കൂടിയിരിക്കുന്ന സമയത്ത് പെട്രോളിൻ്റെ വില കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിടത്തും അങ്ങനെ യാത്ര പോകാൻ തോന്നാറില്ല നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഇപ്പം പഠിക്കാൻ വരണമെങ്കിൽ ബൈക്കെടുത്തിട്ട് വരുന്നത് പോലെ പപ്പയുടെ കൂടെ ബൈക്കില് വരണം അതുപോലെ തന്നെ പപ്പയാണ് എൻ്റെ പപ്പയാണ് ബൈക്ക് ഓടിക്കുന്നത് ഞാൻ ബൈക്ക് ഓടിക്കാറില്ല പക്ഷെ എനിക്ക് ലൈസൻസ് ഉണ്ട് ടു വീലറ് ഓടിക്കാറുണ്ട് പക്ഷേ ആക്റ്റീവ പോലത്തെ വണ്ടികളാണ് ഉപയോഗിക്കുന്നത് ബൈക്ക് ഞാൻ ഓടിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പപ്പയുടെ കൂടെയാണ് ബൈക്കില് വരുന്നത് അപ്പോൾ പപ്പയാണ് എന്നെ കൊണ്ട് വിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളില് ബൈക്ക് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ പപ്പക്ക് ഇപ്പോൾ ജോലിക്ക് പോകാണ്ട് സന്ദർഭങ്ങളില് ബൈക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബൈക്കൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ ഈ പെട്രോള് കൂടിയിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് ദൂര യാത്രയൊന്നും പോകാൻ പോലും തോന്നില്ല കാരണം അറിയാമല്ലോ പെട്രോള് ചിലവാകും പെട്രോളിന് വില കൂടുതലാണ് പെട്രോള് ചിലവാകും കാശ് പോകും എന്നൊരു രീതിയിൽ നമ്മള് അങ്ങനെ ദൂരയാത്രയൊക്കെ ക്യാൻസൽ ചെയ്യാറാണ് പതിവ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് യാത്രകളൊന്നും പോകാൻ പറ്റില്ല ഈ പെട്രോളിൻ്റെ വില വർധനവ് കാരണം പിന്നെ അമിത ഇന്ധന ഉപയോഗം പരിസ്ഥിതിക്ക് ഹാനീകരമാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാനികരമാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം പെട്രോള് എന്ന് പറയുന്നത് നമ്മള് ഈ കോള് എന്നൊക്കെ പറയുന്നത് പോലെ ഈ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന പ്രകൃതിതരമായുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് എത്രത്തോളം കുറയുന്നു അത് പ്രകൃതിയിൽ അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് അത്രത്തോളം പ്രശനമുണ്ടാക്കും ഭാവിയിലുള്ള ഈ തലമുറകൾക്കൊന്നും ഇനി പെട്രോളൊന്നും ഉപയോഗിക്കാൻ കിട്ടുമോ എന്ന് ദൈവത്തിനറിയാം പെട്രോള് അങ്ങനെ അവർക്ക് ഈ നമ്മളെത്രത്തോളം പെട്രോളിനെ ചൂഷണം ചെയ്യുന്നു ചൂഷണം ചെയ്തുപയോഗിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഭാവിയിലുള്ള കുട്ടികൾക്കൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അത് ഒരു തരത്തിൽ കര തരത്തിൽ നോക്കിയാൽ പ്രകൃതിക്ക് ദോഷവും തന്നെയാണ് കാരണം നമ്മള് പെട്രോളും അടിച്ച് വണ്ടിയിൽ പോകുമ്പത്തേക്കും വണ്ടിയിൽ നിന്ന് ഒരുപാട് പുക ഒക്കെ പുറത്ത് പോയി അത് അന്തരീക്ഷത്തില് മലിന്യ മലിനീകരണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു രീതി നോക്കുവാണെങ്കിൽ പെട്രോൾ ഉപയോഗിക്കുന്നത് പെട്രോൾ വണ്ടികൾ ഉപയോഗിക്കുന്നത് വഴിയും പെട്രോൾ അടിക്കുന്നത് വഴിയും അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണ് ചെയ്യുന്നത് ഇപ്പം അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാകുന്നതെന്ന് അതിനെ മാറ്റാൻ വേണ്ടി പ്രകൃതിയില് ഈ പെട്രോള് കൊണ്ടുള്ള ഈ മലിനീകരണം ഒഴിവാക്കാനും പെട്രോളിൻ്റെ ഈ ഉപയോ അമിതമായ ഉപയോഗം കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രിക് പോലത്തെ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്